യോഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളെല്ലാം കൂടിച്ചേരുന്നത് കൂടി ചേരുക എന്നുള്ളതാണ് യോഗ എന്ന് പറയുന്നത് യോഗയ്ക്ക് ഏറ്റവും കൂടുതൽ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതുപോലെ ക്ഷമ സൗമ്യമായ സൗമ്യമായിട്ടുള്ള പെരുമാറ്റം ശാന്തമായിട്ടുള്ള രീതി ക്ഷമ ഇതൊക്കെയാണ് പിന്നെ യോഗ ആദ്യമായി പരിശീലിക്കുന്നവർക്ക് വേണ്ടുന്നത്